വളരെ ചെറു ചെറിയ കാലത്ത് ഈ കളിമണ്ണ് കൊണ്ട് ഞാൻ ഒരു പ്രതിമ ഒരു ഒരു ഒരു രൂപം ഉണ്ടാക്കുകയുണ്ടായി അത് രൂപമെന്ന് വെച്ചാൽ നല്ല രൂപമൊന്നായി വന്നില്ല എന്നാലും ചെറിയൊരു

കളിമണ്ണുകൊണ്ട് ചെളിയെല്ലാം വാരി നല്ല രസമായിരുന്നു പിന്നെ അതല്ലാതെ മൺചിരാത് ഉണ്ടാക്കുവായിരുന്നു മൺചിരാത് ഉണ്ടാക്കി വെയിലത്ത് വെച്ച് ഉണക്കി അത് ദീപാവലി അങ്ങനത്തെ ആഘോഷങ്ങൾക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ നമ്മൾ ടി വി യിൽ ഒക്കെ ഓരോ ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് ഉണ്ടാക്കിയതാ വെക്കേഷൻ ഒക്കെ കൂടുതലും കുട്ടികളോടൊത്ത് കുട്ടികളുടെ ഒക്കെ കൂടെ കളിക്കുമ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനത്തെ ഓരോ കലാരൂപങ്ങളും പ്രതിമകൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കും ഞാൻ മനുഷ്യരൂപമാണ് ഉണ്ടാക്കിയത് നല്ലതായിരുന്നു അത് പിന്നെ വെക്കേഷൻ ഒക്കെ കഴിയുമ്പൊഴത്തേക്കും ഒരു രണ്ടു മൂന്നു ദിവസം അവിടെ ഉണ്ടാവും പിന്നെ അതൊന്നും ഉണ്ടാവില്ല വെക്കേഷൻ ഒക്കെ കഴിയുമ്പോഴേക്കും അതൊക്കെ കാണാൻ തന്നെ ഉണ്ടാവുകയില്ല